ഇന്ന് ഇന്ന് ബാങ്കുകളിൽ ഒരുപാട് പിന്നെ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട ഓഫറുകളും കുറേ ഒരുപാടുണ്ട് അപ്പം നമുക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ബാങ്കുമായി ഇടപെട്ട് അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അവിടെയുള്ള പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കണം അത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരുപാട് പിന്നെ സർക്കാറ് പദ്ധതികളൊക്കെ ഉണ്ട് ലോണും ലോണും കാര്യങ്ങളായിട്ടും ഇ എം ഐ ആയിട്ടും പിന്നെ പലിശ രഹിത വായ്പകളും പിന്നെ മറ്റേ കർഷകർക്കുള്ള വായ്പകളും കുടിശ്ശിക പിൻ തെറ്റാതെ അടയ്ക്കാനുള്ളതുമെല്ലാം നമുക്ക് ഒരുപാട് ഇട ഇടപാടുകളൊക്കെ പിന്നെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ അതിൻ്റേതായ രീതിയിൽ ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പദ്ധതിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയും അത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പൗരന്മാർക്ക് പിന്നെ ഇടപാടുകളൊന്നും ഉണ്ടാകില്ല അപ്പം നല്ല ചെറുപ്പക്കാർക്കും കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്